സാധരണ യൂസ് ചെയ്യുന്ന കോഴിത്തീറ്റകൾ ഏതൊക്കെയാണ് കമ്പനി നെയിമൊന്നും അറിയില്ല പിന്നെ നമ്മൾ എന്താണ് ഗോതമ്പ് തവിട് നെല്ല് കുത്തിയെടുക്കുന്ന തവിട് അതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കോഴിത്തീറ്റകളായിട്ട് കോഴിത്തീറ്റകളായിട്ട് നൽകുന്നത് എന്നാണ് മായം കലരാത്ത ഇത്തരം ഭക്ഷ്യ പദാർത്ഥങ്ങൾ തന്നെയാണ് ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു വരുന്നത്